എൻ്റെ ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചു നേരമൊക്കെ ഒഴിവ് സമയം കിട്ടുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാകും ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ ടിക്ടോക്ക് കാണുക എന്തെങ്കിലും പാട്ടു കേൾക്കുക സോങ് കേൾക്കുക വീഡിയോസ് കാണുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ഹസ്ബൻഡിനെ കൂട്ടീട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോകും കടൽ തീരത്തൊക്കെ പോയി വെറുതെ ഇരിക്കും ഇല്ലെങ്കിൽ പുറത്തു നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ പോകാറുണ്ട് അങ്ങനേക്ക പോവലാണ് ഉള്ളത് കൂടുതൽ സമയോം വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വീട്ടിനുൾ ഉള്ളിൽ കുട്ടികൾ മക്കളെയൊക്കെ ഉറക്കിയിട്ടും ഇല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് സമയം ഒരുപാട് പോകാറുണ്ട് അങ്ങനെ ഒഴിവു സമയം എന്ന് പറഞ്ഞിട്ട് അധികം ഒന്നും കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് ഫോൻ യൂസ് ചെയ്യും ഇല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല അതിന് പകരം ഞങ്ങൾ ഫോണിലെന്തെങ്കിലും ടിക്ടോക്കോ മ്യൂസിക്കോ എന്തെങ്കിലും ഡാൻസോ എന്തെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കണ്ട് സമയം ചിലവഴിക്കുകയാണ് ചെയ്യുക ചെയ്യാറ് ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബുക്ക് വായിക്ക്യേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്